ബാലവേലയെ എന്ന് പറയുന്ന പ്രശ്നത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ബാലവേല നിരോധിക്കണം അല്ലങ്കിലത് ചെയ്യിപ്പിക്കരുത് എന്നുള്ള അഭിപ്രായത്തിനോട് യോജിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ബാലവേലയിൽ കുട്ടികളെ വലിച്ചിഴക്കപ്പെടുന്നത് കൂടുതലും ഭിക്ഷാടന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുട്ടികളെ വലിച്ചിഴക്കപ്പെടുന്നത് അത് ഏത് രീതിയിലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് എങ്ങനെ ആയാലും നമ്മളതിന് നമ്മുടെ ഗെവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഇടപെടലുകളുണ്ട് അത് ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തിയും മെച്ചപ്പെടുത്തി ആ ബാലവേല നിരോധിച്ച് ഒരു രീതിയിലും കുട്ടികളെക്കൊണ്ട് ഭിക്ഷാടനമോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നൊരു സാഹചര്യത്തിലോട്ട് കൊണ്ട് വരരുത് അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടുന്നതാണ് പിന്നീട് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് ഹോട്ടൽ ഹോട്ടൽ പോലുള്ള ഫീൽഡുകളിലൊക്കെ നമ്മൾ കൊണ്ട് വന്ന് പ്ളേറ്റ് വാഷിങ്ങിനായിട്ടോ അതല്ലെങ്കിൽ ക്ലീനിങ്ങ് സാഹചര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് കുട്ടികളെ നിർത്തുന്ന സാഹചര്യങ്ങളുണ്ട് അത് അതിനും ഗെവണ്മെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലേബർ ഡിപ്പാട്ട്മെൻറ്റ്കളൊക്കെ ഇടപെട്ട് കൃത്യമായ ഇൻസ്പ്പക്ഷനുകളൊക്കെ നടത്തി അതിൽനിന്ന് കുട്ടികളെ അതിൽനിന്ന് അങ്ങനെ അങ്ങനെ കൊണ്ടുവന്ന് വിടുന്ന മാതാപിതാക്കളെ അതേപോലെ അങ്ങനെ ജോലിക്ക് നിർത്തുന്ന മുതലാളിമാരെയും കണ്ട് പിടിച്ച് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ശിക്ഷണനടപടികൾ എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്ത് കുട്ടികളെ അങ്ങനെ വിടുന്ന സാഹചര്യത്തിൽനിന്ന് ഒഴിവാക്കണം കുട്ടികൾ കുഞ്ഞ് കുട്ടികളായ സമയത്ത് മാക്സിമം പഠിക്കാനുള്ള സംവിധാനങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കണം പഠിക്കാൻ കുട്ടികൾക്ക് സാഹചര്യമില്ലാതെ വീട്ടുകാർക്ക് പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അതിന് ഗെവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ സഹായങ്ങളുണ്ടായി ഇപ്പം ഉള്ള അങ്കണവാടികൾ അതുപോലെ ഗെവൺമൻറ്റ് സ്കൂളുകളിലൊക്കെത്തന്നെ വിട്ട് കുട്ടികളെ മാക്സിമം അടിസ്ഥാന വിദ്യാഭ്യാസം വരെ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊടുക്കണം ബാലവേല ഒരിക്കലും നമ്മൾ അനുവദിച്ച് കൊടുക്കരുത് കുട്ടികള് പഠിച്ച് ഇത് കൂട്ട് പടിച്ച് കളിച്ചും വളരേണ്ട സമയത്ത് അവരെക്കൊണ്ട് ജോലികൾ ചെയ്യിപ്പിച്ച് അവരുടെ മനസ്സ് മടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ശരീരം പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുൻപ് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നമ്മൾ അനുവദിച്ച് കൊടുക്കാൻ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല അപ്പം അതുകൊണ്ട് ബാലവേല കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം വെച്ച് ബാലവേല തികച്ചും എതിർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പട്ടണത്തിലായാലും നഗരങ്ങളിലായാലും വീട് വീടുകളിലായാലും എങ്ങനെ ആയാലും അത് എതിർത്ത് എതിർത്തിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾളിലേക്ക് കളി ചിരികളും തിരിച്ച് കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിലും നല്ല നല്ല പൗരന്മാരാക്കി വളത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങളാണ് തുടക്കം മുതലേ നമ്മൾ ചെയ്യേണ്ടുന്നത്